നിങ്ങളൊരു ദിവസം രാവിലെ എണീച്ച് എന്തൊക്കെയാ ചെയ്യുക രാവിലെ ഒരു ആറ് മണിക്ക് എണീക്കും അത് കഴിഞ്ഞിട്ട് പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്തുകഴിഞ്ഞ് കുളിക്കും കുളിച്ച് കഴിഞ്ഞ് അമ്മ എന്തെങ്കിലും ചായയും കടിയും ഒക്കെ ഉണ്ടാക്കീട്ടുണ്ടാവും അത് കഴിക്കും കഴിച്ചിട്ട് പിന്നെ ഞാൻ സ്കൂളിലോട്ട് പോവും സ്കൂളിൽ പോയി നാലുമണി ഒക്കെ ആകുമ്പോഴാണ് തിരിച്ച് വരുക പിന്നെ വീട്ടിൽ വന്ന് ചെറിയ ചെറിയ പരിപാടി ഒക്കെ അടിച്ച് വാരുക അങ്ങനത്തെ പരിപാടി ഒക്കെ ചെയ്യും പിന്നെ ഫുഡ് കഴിക്കും പിന്നെ കിടന്ന് ഉറങ്ങും കുറച്ച് നേരം പഠിച്ചിട്ട്